ഹലോ എടാ തങ്കച്ചാ ഞാൻ ഷാജിയാണ് എടാ ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത് ഞാൻ കഴിഞ്ഞ ദിവസവ പാസ്പ്പോട്ടിനൊന്നപ്പ്ളൈ ചെയ്താരുന്നെ അപ്പം അവിടുന്നവരൊരൈ ഒരു ഐ ഡീ തന്നിരുന്നു ആ ഐ ഡി കാ ഐ ഡി നമ്പരും അതിൻ്റെ ഡീറ്റെയിൽസ് എൻറ്റെ കൈയ്യിൽ നിന്നു നഷ്ടപ്പെട്ടു ഇപ്പം ഇനിയിപ്പം അതൊന്നറിഞ്ഞ് അറിയണമെങ്കിൽ അതിന്റെ സ്റ്റാറ്റസ് ഒന്നറിയണമെങ്കിൽ ഒരു നിവൃത്തിയില്ല കഴിഞ്ഞ ദിവസം ഞാൻ പാസ്പ്പോർട്ടു ഫീസ് ച്ചപ്പം അവർ പറയുന്നതു ഐഡൻറ്റൈഡീ നമ്പർ തരാനാ പറയുന്നെ അതെൻറ്റേതെന്നു നഷ്ടപ്പെട്ടു എത്ര കഷ്ടപ്പെട്ട ഇതൊന്ന് സംഘടിപ്പിച്ചില്ല അപ്പോഴേ ചെയ്തേന്നറിയുമോ എന്തെല്ലാം ഡീറ്റെയ്ൽസ് കൊടുത്തിട്ടാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇതെല്ലാം കൊടുത്തിട്ടാണ് അതൊന്ന് സംഘടിപ്പിച്ചത് എല്ലാം കൂടി കൊണ്ടക്കൊടുത്തു ഇപ്പം അതിന്റെ ആ ഐ ഡി കാണാനില്ല കഴിഞ്ഞ ദിവസം ഞാനതു വെച്ചിരുന്നതാണ് ഡയറിക്കകത്തു വെച്ചിരുന്നതാണ് അതീക്കഴിഞ്ഞ ദിവസം വീട് മാറിയപ്പോഴത്തേക്ക് അതെല്ലാമെടുത്തങ്ങോട്ടുമിങ്ങോട്ടും മാറ്റി ഇപ്പത് കാണുന്നില്ല മുഴുവൻ തപ്പി ബായ്ഗിലും പെട്ടിക്കകത്തും ഡയറിയിലുമെല്ലാം തപ്പി അവളും തപ്പികുറേക്കിടന്ന് എന്നിട്ടും കാണാനില്ല ഇനി ഇപ്പം എന്താ ചെയ്യുന്നത് ഞാനാ അടുത്ത മാസം യൂ ക്കേയ്ക്ക് പോകാൻ വേണ്ടി മോളുടെയടുത്തോട്ട് പോകാൻ വേണ്ടി അവളുടെ പ്രസവമായിരുന്നല്ലൊ അപ്പം അവളുടെയടുത്തോട്ട് ഞങ്ങൾ രണ്ടുപേരുടെ പൊ ഞാനും ഭാര്യയും കൂടി പോകാൻ വേണ്ടിയായിരുന്നു അവൾക്ക് പാസ്പ്പോട്ടുണ്ട് എനിക്ക് ഞാൻ പാസ്പ്പോട്ടെടുത്തിട്ടില്ല അതായിപ്പം എടുത്തെ അവളാണേക്കിടന്ന് വിളിയോടു വിളി ഇനിയിപ്പം എനിക്കു പോകാൻ പറ്റുമോയെന്നറിയത്തില്ല ഇനിയിപ്പോൾ അവൾ തന്നെ പോകേണ്ടി വരുമോ അവളാണെ തന്നെപോകത്തില്ലെന്നു പറഞ്ഞെ തന്നെ പോയാൽ ഞാനിവിടെത്തന്നെ കിടന്നെന്നാ ചെയ്യാനായിട്ടാണ് അവൾ പോയിക്കഴിഞ്ഞാൽ ഞാൻ തപ്പിത്തപ്പി മടുത്ത് ഇനി അതെവിടെപ്പോയി തപ്പുമെന്നുള്ളതാണ് ഒരു പിടുത്തവും കിട്ടാത്തത് ഈ കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്ന് പറഞ്ഞ പോലെ എല്ലാ സ്ഥലത്തും തപ്പി ഡ്രോയിലും തപ്പി ഇനി ഞാനത് വേറെവിടെയെങ്കിലും കൊണ്ടു വെച്ചോയെന്നെനിക്കറിയില്ല അതിനേക്കുറിച്ച് അറിയത്തില്ല ഇനി നോക്കണം ബായ്ഗിലുമെല്ലാം തപ്പി ഒന്നും കാണാനില്ല എന്തു ചെയ്യാനാണെന്നു പറ ഇനി ഇപ്പം എന്തെങ്കിലാവ അവൾക്കാണെങ്കിൽ അങ്ങോട്ടു ചെല്ലാഞ്ഞിട്ട് ഭയങ്കര വിഷമം അവൾ തന്നെയല്ലെ അവിടെ അവനും ജോലിക്കു പോകുമല്ലൊ ഞങ്ങൾ ചെന്നാലല്ലേ ഇവൾക്കൂടി എങ്ങോട്ടേലും പോകാൻ പറ്റുകയുള്ളു ഇവൾക്ക് തന്നെയാണെ പോകാൻ പേടി ഇതുവരെ പ്ലെയിനിൽ കയറിയിട്ടില്ല തന്നെപോകാൻ പേടിയാണ് അവൾക്ക് ഞാനില്ലാതെ പോകത്തില്ലെന്നു പറഞ്ഞു ചെന്നില്ലെങ്കിൽ അവർ തന്നെ അവിടെക്കിടന്നെന്തു ചെയ്യാനാ ഒരു ആലോചിച്ചിട്ട് ഒരെത്തും പിടിത്തവും കിട്ടുന്നില്ല എൻ്റെ ഐ ഡി വേറെ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടൊ നമുക്കിത് വേറെയെവിടെന്നെങ്കിലും അതു സംഘടിപ്പിച്ചെടുക്കാൻ വഴിയുണ്ടൊ ഇതു നമുക്ക് ഈ അന്നപ്പ്ളൈ ചെയ്തേനെ ഡേയ്റ്റും സമയമൊക്കെ വെച്ചു കൊടുത്താൽ അതെൻറ്റേലുണ്ട് അപ്പം സമയം വെച്ചുകൊടുത്താൽ അവർക്കെവിടെന്നെങ്കിലുമത് സംഘടിപ്പിച്ചു തരാൻ പറ്റുമായിരിക്കുമോ പാസ്പ്പോർട്ടോഫീസിൽ വിളിച്ചാൽ ഒരു കാര്യവും തെളിച്ചു പറയത്തില്ല അവർ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഐ ഡി നമ്പർ തരാനാണ് പറയുന്നത് നമ്മളിനി എവിടെച്ചെന്നു കണ്ടുപിടിക്കാനാണ് ഇത് എനിക്കറിയത്തില്ല എന്തെങ്കിലും മാർഗ്ഗമുണ്ടോട ഇത് അതോ ഇനി വല്ല എം പിയൊ വഴിയൊ അങ്ങനെവല്ലതും അന്വേഷിച്ചാൽ അറിയാൻ പറ്റുമോ ഇതു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആണല്ലൊ സംസ്ഥാന ഗവൺമെൻറ്റിന്റെ ആരുന്നെ ഇവിടുത്തെ ആരെങ്കിലും കണ്ടൊന്നു ചോദിക്കാമായിരുന്നു അന്വേഷിക്കായിരുന്നു ഇനി ഇപ്പം അതാരെക്കണ്ടാണ് ഒന്നന്നെയ്യാൻ പറ്റുന്നത് നിനക്ക് വല്ല എം പിയെ വല്ലതും പരിചയമുണ്ടെങ്കിൽ ഒന്നു ചോദിച്ചിട്ടൊന്നു പറയാൻ പറ്റുമെങ്കിലെ വലിയ ഉപകാരമായിരുന്നു ഒന്ന് നോക്കണേട അല്ലെ നീ നീ ഇന്നാളൊന്ന് പാസ്പ്പോട്ടോഫീസിൽ പോയതല്ലെ അല്ലെ നമുക്കൊന്നൊരുമിച്ചവിടം വരെപ്പോകാം നീ എൻ്റെ കൂടൊന്നു വരാൻ പറ്റുമോ വരാൻ പറ്റുമെങ്കിൽ നമുക്കൊന്നു പോയി അവിടെപ്പോയൊന്നന്വേഷിക്കാം എങ്ങിനെങ്കിലുമൊന്ന് സംഘടിപ്പിച്ചില്ലേ ശരിയാകത്തില്ല അവളാണെ ഒന്നു പോകാം എന്നുള്ളൊരു യൂ ക്കേലൊക്കെ ഒന്നുപോയി എല്ലായിടവും കാണാം എന്നുള്ളതിൽ ഇരിക്കുമായിരുന്നു ഒന്നു സഹായിക്കണേട നിനക്ക് പറ്റുമ്പോളൊന്നു വരണെ